ഹലോ ആ പറഞ്ഞോളൂ ഹലോ ആ അതെ അതെ ഹലോ കേൾക്കുന്നില്ലേ ആ പറഞ്ഞോളു ആ പറഞ്ഞോളൂ ആ കൊറോണ പേഷ്യൻ്റ് ആണല്ലേ എപ്പോഴായിരുന്നു ടെസ്റ്റ് ചെയ്തത് പോസിറ്റീവ് ആണോ ആ എവിടെ റൂമിനകത്ത് തന്നെയാണോ ഇരിക്കുന്നത് പിന്നെ റൂമിന് അകത്തു തന്നെ ഇരിക്കണം പിന്നെ ഇപ്പോൾ എന്താ പറയുക വീട്ടുകാരുമായിട്ട് വേറെ എന്താ പറയുക ഒരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും പാടില്ല അവരുമായിട്ട് സംസാരിക്കാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല അവരോട് ഭക്ഷണം എന്ത് ചെയ്യുക മേലെ മറ്റേ നമ്മുടെ വാതിലിൻ്റെ അവിടെ കൊണ്ടു വച്ച് തരാൻ പറയുക നിങ്ങൾ തന്നെ വേണം പാത്രം കഴുകിയിട്ട് സാനിറ്റൈസ് ചെയ്തിട്ട് അവർക്കു കൊടുക്കാൻ ആ പിന്നെ എപ്പോഴും എപ്പോഴും എന്താ പറയുക കൈ സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കണം കൈ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യണം മാസ്ക് എപ്പോഴും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ പനിക്കെന്തെങ്കിലും മരുന്നെന്തെങ്കിലും തന്നിരുന്നോ ആശാ വർക്കറ് എന്തെങ്കിലും തന്നിരുന്നോ ഒന്നും കിട്ടിയില്ല ആ ഓക്കെ ഇടയ്ക്ക് ഒരു നമ്മളിപ്പം ഈ ഇഞ്ചി ചതച്ചിട്ടിട്ട് അങ്ങനത്തെ വെള്ളം ഒക്കെ കുടിക്കാം നമുക്ക് പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ആ അപ്പോൾ അത് ചെയ്യുക പിന്നെ എന്താ വച്ചു കഴിഞ്ഞാൽ പാരസെറ്റമോള് പാരസെറ്റമോളൊക്കെ കഴിക്കാം ആ ഓക്കെ പിന്നെ എന്താണെന്ന് വച്ചാൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ

ആ ഭക്ഷണത്തിൽ നമ്മൾ ഭക്ഷണത്തിലൊന്നും ശ്രദ്ധിക്കണം എന്നൊന്നുമില്ല ഭക്ഷണം ഈ ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഓവറ് കഴിക്കാണ്ടിരിക്കുന്നത് നല്ലതാണ് കാരണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് പനി കൂടുക അങ്ങനത്തെ ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിക്കൻ ഐറ്റംസ് കുറയ്ക്കുക നമ്മൾ നല്ലവണം ഇലക്കറികൾ അങ്ങനത്തെ ഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണങ്ങൾ അത് കൂടുതലായിട്ട് കഴിക്കുക ആ ഓവർ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക ഓവർ രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് ഒരു രണ്ട് മണിക്കൂർ മുന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേണം കിടക്കാൻ ഭക്ഷണം ക്രമീകരിച്ചാൽ തന്നെ നമുക്ക് ഈ വൈറൽ ഫീവറൊക്കെ പെട്ടന്ന് പോവുകയൊക്കെ ചെയ്യും

ശ്വാസം മുട്ടലുണ്ട് അത് കൊറോണ വന്നതുകൊണ്ടുള്ളൊരു ശ്വാസം മുട്ടലാണ് അത് കുഴപ്പമില്ല അത് മാറിക്കോളും ഈ മരുന്ന് കഴിക്ക് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ഒന്ന് എന്നെ വിളിക്കണം അപ്പോൾ ഞാൻ ആശ വർക്കറെ അങ്ങോട്ട് വിടാം മരുന്ന് തന്നിട്ട് ആ ഓക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ

ഓക്കെ എന്നാൽ